ആ ഹലോ ചേട്ടാ ഞാൻ ഇവിടുത്തെ ഞങ്ങൾ ഞാൻ അവിടെ നിന്ന് ക്യാബ് ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അവിടെ നിന്ന് ഞങ്ങൾ ഫാമിലിയായിട്ട് ഒരു ട്രിപ്പ് പോകണം പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ വേറൊരു ആവിശ്യം അത് പറഞ്ഞാൽ കുറച്ച് വേറൊരു ഫാമിലി മാറ്റേഴ്സ് കാരണം ആ ഒരു ട്രിപ്പ് മാറ്റി വയ്ക്കുകയാണ് ആ അതുകൊണ്ട് ഞാൻ അന്ന് തന്ന ഒരു അഡ്വാൻസ് എന്ന ഒരു ഫൈവ് തൗസൻറ് റുപ്പീസ് അയ്യായിരം രൂപ ഒന്ന് തിരിച്ച് തരാൻ പറ്റുമോ ഒന്ന് ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ഒന്ന് അതൊന്ന് ട്രാൻസ്ഫർ ചെയ്താൽ മതി ഓൺലൈൻ ആയിട്ട് ചെയ്താലും മതി ഫോൺപേ അല്ലെങ്കിൽ ജിപേ പേടിഎം വഴിയോ ഒന്ന് പണം ആവിശ്യമുണ്ട് എനിക്ക് വേറൊരു ആവിശ്യത്തിന് ആയതുകൊണ്ട് പണം വേഗം തന്നെ തിരിച്ചു തന്നാൽ അത്രയും ഉപകാരം